ഹലോ കേൾക്കാവോ ആ പറഞ്ഞോളൂ ആ ആ അതെ

ആ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ്സിൻ്റെയാണ് വേണ്ടത് ആ ഉണ്ട് ഇവിടെ ഒരുപാട് പുതിയ ബ്രാൻഡിൻ്റെ അവൈലബിളായിട്ടുണ്ട് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാനാണോ അതോ ഓൺലൈനിലാണോ ഓൺലൈൻ ഡെലിവറി നിങ്ങളെ ലൊക്കേഷൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ അടുത്ത് ഫൈവ് കിലോമീറ്ററിനുള്ളിൽ വരുവാണെങ്കിൽ ഓൺലൈൻ ആ ഡെലിവറി ഉള്ളൂ ഇല്ലെങ്കിൽ വന്ന് വാങ്ങേണ്ടി വരും വന്ന് വാങ്ങാനാണെങ്കിൽ ഫ്രൈഡേയും സൺഡേയും ഓഫേഴ്സുണ്ട് ഓൺലൈൻ ഡെലിവറിക്കത് കാണില്ലായിരിക്കും ആ ആ ഫ്രൈഡേയും സൺഡേം ഓഫറൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ആ എല്ലാ പ്രൊഡക്റ്റ്സിനും ഇതേപോലെ ഓഫൊണ്ട് പിന്നെ ഹിമാലേടെ ഒരു ടു ഫിഫ്റ്റി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്

ആ ആ എടുക്കാൻ പറ്റും ആ ഞങ്ങളുടെ ലൊക്കേഷൻ കൊച്ചി പനമ്പിള്ളി നഗറിൻ്റെ അടുത്തായിട്ട് വരും ആ ഓക്കെ ആ പനമ്പിള്ളി നഗറിൻ്റെ അടുത്ത് ഫൈവ് കിലോമീറ്റർ റേഡിയസിനുള്ളിലാണെങ്കിൽ അങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്യും ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ